ഹലോ ആ അതെ അതെ ആ പറഞ്ഞോ നിങ്ങൾക്ക് എവിടെയാണ് പോവേണ്ടത്

ആ ആ ആ ആ ആ ഇവിടെ ഇപ്പോൾ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് അന്നേരം ഇവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ പറയുവാണെങ്കിൽ ഡിസംബർ ജനുവരി മാസം ആണ് തണുപ്പ് കൂടുതൽ ഇത് ഇപ്പം ഇപ്പോൾ ഒരു മൈനസ് ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ ഈ സമയം ഈ മാസങ്ങളിലുള്ള തണുപ്പെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് ഒരു അതിൽനിന്ന് ഒരു വ്യത്യാസം ആയിട്ടുണ്ട് അന്നേരം ഒരു ദിവസം കൊണ്ട് മൂന്നാർ മൊത്തം കറങ്ങി കാണാമെന്ന് പറയുന്നത് നടക്കത്തില്ല കാണിച്ചാൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പറ്റുന്നത് പോലെ പോകാം ആ ആ ആ ആ ഉണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഇത് എല്ലാം സൗകര്യം ഉള്ള പിന്നെ ബോട്ടിംഗിന് അല്ലാതെയാണെന്നുണ്ടെങ്കിൽ പോകാൻ ആയിട്ട് ഇപ്പം ഇപ്പം ഞാൻ ഓട്ടോയും കൊണ്ട് വരുന്നത് കൊണ്ട് എനിക്ക് ഇപ്പം ബോട്ടിംഗിന് നിന്നപ്പോൾ ഒരുപാട് ഞാൻ വെയിറ്റ് ചെയ്യുകയും എടുക്കുകയും ചെയ്യേണ്ടി വരും ഇപ്പോൾ അല്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഫാം ഉണ്ട് അതായത് കാരറ്റ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ ഇത് ചെ കൃഷി ചെയ്യുന്ന കാര കാരറ്റ് ക്യാബേജ് തക്കാളി ബീൻസ് അങ്ങനെ ഉള്ള ഇതൊക്കെ ചെയ്യുന്നിടം കാണാനായിട്ട് പോവാൻ പറ്റും പിന്നെ എക്കോ പോയിന്റ് അത് ഇവിടുന്ന് നമ്മുടെ ഹിൽ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പം എല്ലായിടവും കൂടെ പോയി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ നയൻത് കുട്ടികളെയും കൊണ്ട് ഒക്കെ വരുമ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് പിന്നെ മറയൂർ ശർക്കര ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ അപ്പം അങ്ങനെ പിന്നെ മറ്റേ ഇത് പഴങ്ങൾ സ്ട്രോബറിയും മൾബറിയും ഒക്കെ കൃഷി ചെയ്യുന്ന ഇടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മ്യൂസിയം ഉണ്ട് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കണ്ട് തീരത്തില്ല പിന്നെ മാക്സിമം നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്നത്രയും ഞാൻ കൊണ്ട് പോവാം എനിക്ക് അപ്പോൾ അന്നേരം വേറെ ഓട്ടത്തിനും കാര്യങ്ങളും ഒന്നും ഞാൻ പോകാതെ നിൽക്കുമ്പം എനിക്ക് അതിനുള്ള കൂലിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി എനിക്ക് ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ കൊണ്ട് പോകാം ആ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് സാദാ നമുക്ക് അവിടെ കിട്ടുന്ന അങ്ങനെ പ്രത്യേകത ഉണ്ടെന്ന് പറയത്തില്ല പിന്നെ നമുക്ക് എന്താണ് ആവശ്യം ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം നല്ല ചൂടോടെ തന്നെ ഭക്ഷണങ്ങൾ എല്ലാം കിട്ടും പിന്നെ നല്ലെ വിഷം ഒന്നും അടിക്കാത്ത നല്ല പഴങ്ങൾ കിട്ടും ഇവിടെത്തന്നെ ഫാമുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടേ അപ്പോൾ അത് എല്ലാം അങ്ങനെ കിട്ടും നിങ്ങൾ എന്നത്തേതിന് വരാൻ ആയിട്ടാണ് അന്നേരം ആ പിള്ളേരുടെ അവധി ഒക്കെ നോക്കി വരാൻ ആയിട്ടാണോ ആ ആ അങ്ങനെ എന്ന് വെച്ചാൽ ആ അതെ അതെ ആ അതിൻ്റെ അതായത് ഇതിൻ്റെ മ്യൂസിയം ടീ ടീയുടെ ഇതിൻ്റെ തന്നെ മ്യൂസിയം ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആണെങ്കിലും ഇതെല്ലാം കണ്ടും സാധനങ്ങൾ മേടിക്കുവോ എടുക്കുവോ ഒക്കെ ചെയ്യാം

ഇല്ല ഇല്ല മൂന്നാറെന്ന് പറയുമ്പം ഇങ്ങനെ വിശാലം ആയിട്ട് കിടക്കുവല്ലേ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഡാം ഉണ്ട് മാട്ടുപ്പെട്ടി ഡാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് ഒറ്റ ദിവസം കൊണ്ട് ഇത് ഒക്കെ നമ്മൾ കണ്ട് തീരത്തില്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കാണാനായിട്ട് ആ അപ്പം പിന്നെ പതുക്കെ വിലക്കുറവെന്ന് പറയുന്നത് നമ്മളിപ്പം നിങ്ങൾ താമസിക്കുന്നിടത്തെ ആ ഒരു ഇത് വെച്ച് എങ്ങനെയാണ് നിങ്ങൾ വന്ന് ഇതായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ വ്യത്യാസം വിലയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മേടിക്കുന്ന ആ ഒരു ഇത് ആയിരിക്കില്ല ചിലപ്പം ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ അപ്പോൾ പിന്നെ സാധനങ്ങൾക്ക് ഒക്കെ വില അധികമായിരിക്കും അതായത് തുണിയും കാര്യങ്ങളും ഒക്കെ മേടിക്കുമ്പം അതിന് ഒക്കെ വില കൂടാനാണ് നിങ്ങളുടെ അവിടുത്ത ആ ഒരു ഇത് വെച്ച് നിങ്ങൾ വന്ന് നോക്കി കഴിയുമ്പോഴേ നിങ്ങൾക്ക് അത് അറിയത്തുള്ളൂ

ആ ശരി എന്നാൽ ആയിക്കോട്ടെ ആ